ഇപ്പോൾ വയനാട് ജില്ലയിലെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പാരിസ്ഥിതിക വെല്ലുവിളികളെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് മരം വെട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അതുമല്ല ജലമലിനീകരിക്കലൊക്കെ മലിനീകരണം അതായത് ജലത്തിലൊക്കെ പ്ലാസ്റ്റിക്ക് ഇടുക പിന്നെ ഈ വേസ്റ്റ് വെള്ളം കൊണ്ടൊഴിക്കുക വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ അതായത് പുഴ വഴിയൊക്കെ വരും പിന്നെ അതായിരിക്കും നമ്മൾ കുടിക്കുന്നത് അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും പിന്നെ എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ സ്രോതസ്സെന്നു വച്ചാൽ മെയിൻ ആയിട്ട് നമുക്ക് കിണർ അതേപോലെ തോട് പിന്നെ പുഴകളിലൂടെ ഉള്ള വെള്ളം പിന്നെ കുഴൽക്കിണർ അങ്ങനെ ഒക്കെയാണ് നമ്മുടെ മെയിൻ ജലസ്രോതസ്സുകൾ പിന്നെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ മുൻസിപ്പാലിറ്റി സ്ഥിരമായിട്ട് പ്രദേശം വൃത്തിയാക്കൽ സ്ഥിരമായിട്ടൊന്നും വൃത്തിയാക്കുന്നൊന്നുമില്ല വൃത്തിയാക്കുന്നുണ്ട് ചവറ്റുകൊട്ടകളൊക്കെ എടുത്ത് കളയാൻ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊന്നും കൊണ്ടു പോകുന്നില്ല അവർ ഇടയ്ക്ക് അതായത് അവർ ഓരോ സമയത്ത് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ എപ്പോഴൊന്നും അതൊന്നും വൃത്തിയാക്കിയൊന്നും ഇതാക്കുന്നില്ല പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല വനനശീകരണം കൊണ്ടാണ് ഈ മണ്ണൊലിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതൊന്നും ആരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എല്ലാർക്കും അതായത് അവരുടേതായ ഇതായതുകൊണ്ട് അവർ മരം വെട്ടുന്നു മണ്ണെടുക്കുന്നു അങ്ങനത്ത പ്രശ്നങ്ങളൊക്കെ പക്ഷേ അതിൻ്റെയൊന്നും അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല